അതേയല്ലാ ഇത് ഗാന്ധിയന് ലൈബ്രറി ബുക്സ് ആണേ കോട്ടയത്ത് ഉള്ളതാ നിങ്ങള് എവിടുന്നാ വിളിക്കുന്നത് കഞ്ഞിക്കുഴിയില് നിന്നാണോ ഓക്കേ ആ ഞാൻ ഇപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് ഫയലില് ഒന്ന് നോക്കിക്കോട്ടേ ഓക്കെ യോക്കെ ആ മറിച്ചുകൊണ്ടിരിക്കുകയാണേ മലയാളം ബുക്കേ മലയാളം ബുക്കിന്റെ ഇതൊന്ന് നോക്കുവാണേ അ ആ ചെമ്മീൻ ബുക്ക് അല്ലേ തകഴിയുടെ ആണോ തകഴിയുടെ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആ നേരത്തെ തീര്ച്ചയായിട്ടും ആ തീര്ച്ചയായിട്ടും ഉണ്ട് ഇതിനൊരു ഫീസ് ഉണ്ട് ഫീസ് അതായത് ഇപ്പം ഒരു പതിനഞ്ച് ദിവസത്തേക്കാണ് എങ്കില് നൂറ്റമ്പത് രൂപയാണ് ഞങ്ങള് വാങ്ങിക്കു ഈ അപ്പം ഒരു മുപ്പത് ദിവസത്തേക്കാണെങ്കില് മുന്നൂറ് രൂപ ഒക്കേ അത് പിന്നെ ഏതെങ്കിലും കേടുപാടുകൾ വരുകയാണെങ്കില് പുസ്തകത്തിൻ്റെ മുഴുവന് ചാര്ജും നിങ്ങള് വഹിക്കേണ്ടിവരും കേട്ടോ അതുകൊണ്ട് സുക്ഷ്മതയോടുകൂടെ ഇതുപയോഗിച്ച് നിങ്ങൾ തിരിച്ച്തരിക എത്രയും വേഗം തിരിച്ച് തരികയാണെങ്കിൽ അത്രയും ഫീസ് കുറയും കാരണം ഇത് പബ്ലിക്ക് ആണേ എല്ലാവര്ക്കുംകൂടി ഉള്ളതാ ഇത് എന്നാലേ അതായത് സണ്ഡേയിലില്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് പിന്നെ സെക്കന്റ് സാറ്റര്ഡേയിൽ ഞങ്ങളിത് തുറക്കുന്നില്ല ഇപ്പം അങ്ങനെ ഒന്ന് വച്ചിരിക്കുകയാ സെക്കന്റ് സാറ്റര്ഡേ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒരു പത്ത് മണിക്ക് വന്നാൽ അഞ്ച് മണി വരെ ഈ ഓഫീസ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ലൈബ്രറി അത് ഇപ്പോൾ ഉണ്ടായിരുന്നു അത് ഒരാൾ കൊണ്ടുപോയിരിക്കുകയാ അവർ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം അവർ തിരിച്ച് തരാം എന്നാ പറഞ്ഞരിക്കുന്നത് ആ അത് കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം കേട്ടോ ഇപ്പം അപ്പോഴേക്കും ഈ തകഴിയുടെ ഏ ചെമ്മീന് ബുക്ക് വായിച്ചുകഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പുസ്തകം കൂടി തരാം അത് അതു ഉണ്ട് കേട്ടോ അത് ഉണ്ട് പക്ഷേ ഈയിടെ അവിടുത്തെ ലൂര്ദ് പള്ളിയിലെ ഫാദര് വന്നു അത് എടുത്തുകൊണ്ട് പോയായിരുന്നേ അവര്ക്ക് ഏതാണ്ട് കോമ്പറ്റീഷനോ മറ്റോ ഏതാണ്ട് ഉണ്ടെന്നും പറഞ്ഞ് അത് എടുത്ത് കൊണ്ടുപോയി അവരത് താമസിക്കാതെ തരാം എന്ന് പറഞ്ഞ് പത്ത് ദിവസത്തിനകം കൊണ്ട് വരാം എന്നാ പറഞ്ഞത് അപ്പോൾ അടുത്ത ബുധനാഴ്ചക്കകം അത് കിട്ടും അത് വേണമെങ്കിൽ ബുധനാഴ്ച വന്നാൽ കിട്ടും കേട്ടോ

ആ ഇന്ഡ്യന് ചരിത്രം ഉണ്ട് ഉണ്ട് കേട്ടോ ഉണ്ട് നിങ്ങളാദ്യം വന്ന് ഈ ലൈബ്രറി ഒന്ന് ഇങ്ങനെ അതിൽ ബുക്കുകളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ആയിട്ടേ നേരിട്ട് വന്നാലേ ഇതിന്റെ എല്ലാം തന്നേക്കാം അപ്പോൾ അതിനകത്ത് നോക്കി നിങ്ങൾക്ക് ഏത് ബുക്കാ എന്ന് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഉള്ളത് ഇവിടെ സാമാന്യം എല്ലാ ബുക്കുകളും ഇവിടെ ഉണ്ട് കേട്ടോ സ്ഥലം കോട്ടയം അല്ലേ പിന്നെ ഇവിടെ എപ്പോഴും ആളുകള് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണേ അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ എപ്പോഴും അവൈലബിള് ആണ് ഇവിടുത്തെ മറ്റു എല്ലാ സെന്ററിനേക്കാള് നല്ല നീറ്റ് ആണ് ഇവിടെ അതുപോലെത്തന്നെ എല്ലാം ഇപ്പം പുസ്തകങ്ങളാണെങ്കിലും വളരെ ആം വെരിഫൈ ചെയ്താണ് കൊടുക്കുന്നത് തിരിച്ചു വരുമ്പോഴും അതുപോലെ സുക്ഷ്മതയോടുകൂടി തന്നെയാണ് ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഒന്നും ഉം ഉം പിന്നെ ഇതിൽ ഇല്ലാത്തത് ഉണ്ടെങ്കിൽ അവർ എടുത്ത് കൊണ്ടുപോയതായിരിക്കുവേ അപ്പം അവരില്നിന്ന് നമുക്ക് താമസിക്കാതെ കിട്ടും ഓക്കേ അപ്പോൾ ഓക്കേ കേട്ടോ സീ യു ശരി ശരി